എനിക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തക പരമ്പര പറഞ്ഞാൽ അതാണ് ഇംഗ്ലീഷിലുള്ള ഹാരി പോട്ടറുടെ ജെ കെ റൗളിങ് എഴുതിയ ഹാരി പോട്ടറുടെ ഒരു സീരീസ് ഓഫ് ബുക്ക്സ് ഏതാണ്ട് ഏഴ് ബുക്കുകളാണ് ഇതുവരെ ആയിട്ടുള്ളത് പലതും വായിച്ചിട്ടുണ്ട് അതിലെ പ്രധാന മൂന്ന് കഥാപാത്രങ്ങളാണ് ഹാരി പോട്ടർ റോൺ ഹെർമയണി അതിലുള്ള ഒര് വില്ലനാണ് ഓൾഡമോൾഡ് ഈ വില്ലൻ ഹാരി പോട്ടറെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതു കൂടുതലും മേജിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും മജീഷ്യന്മാരാണ് അവരെ അവർക്കാണ് ഇഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ഏത് രീതിയിലുള്ള മേജിക്കുകൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഈ അവരുടെയൊക്കെ മാതാപിതാക്കളും ഇവരും ഒക്കെ മജീഷ്യൻസാണ് ഇവർക്കെല്ലാം ന നല്ല നല്ല രീതിയിലുള്ള മാജിക് പവേഴ്സ് ആണുള്ളത് ഇവരെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ റിയൽ വേൾഡിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ഒരു ഒളിച്ചോട്ടം ഏന്നുള്ള രീതിയിലെ ഉള്ളൂ ഫ്രിക്ഷൻസ് ഇതു മാത്രം കാണിക്കുന്നതാണ് കൂടുതലായിട്ടും സാധാരണ ആളുകളെ സാധാരണ ആളുകളെ എന്നല്ല സാധാരണ പിള്ളേരെ ആണിത് കൂടുതൽ ഇതിൻ്റെ ഈ അഡ്വഞ്ചറസ്സായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്കും ചെയ്യണമെന്നുള്ള രീതിയിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്തു കൊടുത്തിരിക്കുന്നത് ഈ മന്ത്രവാദികളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സാധാരണ ആൾക്കാർക്കിത് അത്ര വായിച്ച് രസിക്കാൻ പറ്റിയ ഒരു ഇതാണെന്നു തോന്നുന്നില്ല പക്ഷെ പിള്ളേർ കുട്ടികൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടും കാരണം മന്ത്രവാദവും അവരെങ്ങനെ പറന്നു പോകുന്നതും അവർ എന്തുദ്ദേശിച്ചോ ആ രിതിയിലാണ് സമയം ചെയ്തിരിക്കുന്നുള്ളതാണ് അതൊക്കെ എപ്പോഴും കുട്ടികൾക്കിഷ്ടപ്പെടുന്ന രീതിയിലാണ് ഹാരി പോട്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു റിയൽ വേൾഡിലെ കാര്യങ്ങൾ പറയാൻ ഒന്നു ഇല്ല ഒരു എസ്കേയ്പ്പാണ് എസ്കേപ് ഫ്രം റിയൽ വേൾഡെന്നാണിത് അറിയാൻ പറയാൻ സാധിക്കുന്നത്